നമ്മുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മക്കളോ അല്ലെങ്കിൽ യുവ തലമുറയോ കൃഷി ചെയ്യാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല കാരണം അവർക്ക് വൈറ്റ് കോളർ ജോബിനോടും അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലിയെടുത്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്ന് ഉള്ളതിനോടാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ അവർക്ക് താൽപ്പര്യമില്ല കൃഷി അവർ ഒരു തൊഴിലായിട്ട് തന്നെ അവർ കണക്കിലെടുത്തിട്ടില്ല ഇനിയും വരുന്ന തലമുറയും കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഇപ്പോഴത്തെ തലമുറയിലാരും കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അതിനോടുള്ള താൽപ്പര്യം കുറയുകയും ചെയ്യുന്നു പക്ഷേ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നില നിർത്താൻ വേണ്ടിയിട്ട് കൃഷി ആവശ്യമാണ് നമുക്ക് ആവശ്യമായ ഭക്ഷണ വസ്തുക്കൾ ലഭിക്കണമെങ്കിൽ കൃഷി വേണം പിന്നെ കൃഷിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പല പല ഘടകങ്ങളും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്